ഞാൻ പിന്നെ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഫാൻ ആണ് മേടിച്ചതേ അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഫാൻ ആണ് വലിയ കുഴപ്പം ഒന്നുമില്ല പിന്നെ ടേബിൾ ഫാൻ ആണ് മേടിച്ചത് ആ പിന്നെ അതുമാത്രമേ എനിക്കൊരു നെഗറ്റീവ് ആയി തോന്നിയിട്ടുള്ളൂ ഞാൻ ടേബിൾ ഫാൻ ആണ് മേടിച്ചത് പക്ഷേ

പിന്നെ പിന്നെ പ അതായത് മേടിച്ച് വന്നപ്പോഴാണ് എല്ലാവരും പറയുന്നത് അതിൽ കാര്യമില്ലല്ലോ പിന്നെ അത് മാത്രമാണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയത് വേറെ കുഴപ്പം ഒന്നുമില്ല നല്ല അടിപൊളി ഫാൻ ആണ് നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റ് ആയതുകൊണ്ട് ജലദോഷം തുമ്മലും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ വരും സീലിംഗ് ഫാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിക്ക് നല്ല കുറച്ച് വയ്ക്കാം പക്ഷേ ഇതിൽ നമ്മൾ ഫസ്റ്റിൽ ഇട്ടാലും അതിന് അത്യാവശ്യം ഒരു കാറ്റുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് വേറെ പ്രശ്നം ഒന്നുമില്ല